ഹലോ ആരാണ് വിളിക്കുന്നത് അതെ ആ ഞാൻ ഡോക്ടർ ഇന്ന് ഡോക്ടറെ ഇന്ന് കാണിക്കാം ഡോക്ടർ ഉണ്ട് ഇവിടെ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എവിടെയാണ് കോട്ടയത്താണോ ഫിസിഷ്യൻ ഉണ്ട് ഇവിടെ ഫിസിഷ്യൻ ഉണ്ട് രണ്ടുമൂന്ന് പേരുണ്ട് ഫിസിഷ്യൻമാർ ആ ആ ആ ആരെയാണ് കാണണ്ടത് ഇവിടെ വന്നിട്ട് അപ്പോയിമെൻറ് എടുത്തിട്ട് ആരെ വേണമെങ്കിലും നമുക്ക് കാണാം ഇഷ്ടം ഉള്ളവരെ കാണാം ആ ഹാ ഹാ വന്നാൽ മതി അതായത് എന്നാ കയ്യിലോട്ടൊക്കെ വേദന വരുന്നുണ്ടോ കൈ ഒരു ലെഫ്റ്റ് സൈഡിൽ കയ്യിലോട്ടൊക്കെ വേദന വരുന്നുണ്ടോ വേദന കയറുന്നുണ്ടല്ലേ അപ്പം അപ്പോൾ പിന്നെ ആ അല്ല അങ്ങനെ എന്നാ വ രാവിലെ എന്നാ ഭക്ഷണം കഴിച്ചത് എന്നായിരുന്നു ഇടിയപ്പം ആ ഗ്യാസിന്റെ കൊണ്ട് വല്ലതും ആണോ എന്ന് അറിയാനായിട്ടായിരുന്നു ഗ്യാസിന്റെ ബുദ്ധിമുട്ട് പ്രയാസം ഒന്നും ഇല്ല അല്ലേ ആ ആ ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിന് അപ്പോയിന്റ്മെൻറ് എടുക്കണോ ഏതു ഡോക്റ്റ് മൂന്ന് ഡോക്ടഴ്സ് ഉണ്ട് അതിൽ രാമചന്ദ്രന് സാറിനായിരിക്കും എടുക്കുന്നത് നല്ലത് രാമചന്ദ്രന് സാറിന് വേറെ രണ്ടുപേരുണ്ട് പക്ഷേ രാമചന്ദ്രന് സാറിന് അപ്പോയിൻറ്മെൻറ് എടുക്കുവായിരിക്കും നല്ലത് ഡോക്ടറിന് ഡോക്ടറിനിപ്പം ഇത്തിരി തിരക്കുണ്ട് എന്നാലും വേഗം വരാന് പറ്റുമോ അല്ലെങ്കിൽ കാഷ്വാല്റ്റിയിൽ ആണെങ്കിലും നമുക്ക് കാണിക്കാം സമയം ഒരു രണ്ട് മണിയാവുമ്പോഴത്തേക്കിന് വരാമോ രണ്ട് മണിക്കത്തേക്കിന് ബുക്ക് ചെയ്തേക്കാം അവിടുന്ന് ബുക്ക് ചെയ്തേക്കാം ആ ആ ആ ഡോക്ടറിന്റെ വീട് എനിക്ക് അറിയില്ല ഡോക്ടർ ഇവിടെ ഉണ്ട് ഫുള് ടൈം ആയിട്ടുണ്ട് ഇപ്പോഴെന്താണ് ഡോക്ടറുടെ കൃത്യമായിട്ടുള്ള വീടൊന്നും എനിക്ക് അറിയില്ല ഡോക്ടർ ഫുള് ടൈം ഇവിടെ ഉണ്ട് എപ്പം വന്നാലും കാണാൻ പറ്റും ഒ പി ടൈം വന്നിട്ട് രാവിലെ ഒന്ന് തൊട്ട് രണ്ട് വരെയാണ് ഒരു മണി തൊട്ട് രാവിലെ പത്ത് മണി തൊട്ട് രണ്ട് മണി വരെ ഒ പി ടൈം ഉണ്ട് ഇപ്പോൾ കുറച്ച് പേഷ്യന്റ്സ് ഒക്കെ ഉണ്ട് ആ പേഷ്യന്റ്സിനെ ഒക്കെ ആ പേഷ്യന്റ്സിനെ ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോയിൻറ്മെൻറ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വിളിക്കുവല്ലേ അതുകൊണ്ട് അപ്പോയിൻറ്മെൻറ് ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം അവരെ ഒക്കെ കണ്ടുകഴിഞ്ഞിട്ടേ കാണാന് പറ്റുള്ളൂ പിന്നെ എന്തെങ്കിലും എമര്ജെന്സി നമുക്ക് തോന്നിക്കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാഷ്വല്റ്റിയിലോട്ടോ വല്ലതും കൊണ്ട് കാണിക്കാം ആ അപ്പോൾ അത് ഒത്തിരി ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നുണ്ടോ വേദന കൂടുതലായിട്ട് കയറി വരുന്നുണ്ടോ എത്ര ദിവസമായി തുടങ്ങിയിട്ട് എത്ര ദിവസമായി ഇന്നലെ തൊട്ടാണോ തുടങ്ങിയത് ഇന്നലെ തൊട്ട് ആ ഭക്ഷണം കഴിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ആ ആ ആ ആ വയറ്റിൽ നിന്നൊക്കെ പോവുന്നുണ്ടല്ലോ വയറ്റിൽ നിന്നൊക്കെ പോകാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ആ ആ ആ ആ ആ ആ ഷുഗർ ഉണ്ടോ ഷുഗർ ഒന്നുമില്ല പ്രഷർ ഉണ്ടോ പ്രഷർ ചെറുതായിട്ട് ഗുളികയൊന്നും കഴിക്കുന്നില്ലല്ലോ ആ ആ ആ കൊളസ്ട്രോൾ ഉണ്ടോ ആ ഹാ ഹാ ഹാ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നുണ്ടല്ലേ ആ ഹാ ആ ആ എത്ര നാളായിട്ട് കഴിക്കുന്നുണ്ട് കൊളസ്ട്രോളിന് ഒരു വര്ഷമായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ പ് കഴിക്കുന്ന ആ ഗുളികയുടെ ഒക്കെ പേരും ഒക്കെ ആ ഇത് ഉണ്ടെന്നുണ്ടെങ്കില് ഗുളിക ഉണ്ടെന്നുണ്ടെങ്കില് അതും ഒക്കെ ആയിട്ട് പോരുമ്പോഴത്തേക്കിന് ഇങ്ങ് പോരണേ എന്നാലല്ലേ ഡോക്ടറിന് അതിന്റെ കൃത്യമായിട്ടുള്ള ഇത് നോക്കാന് പറ്റുള്ളൂ അപ്പോൾ ഇത്ര ഇത്ര നാളായിട്ട് കഴി ആ ആ എച്ച് ഡി എല് കൂടുതലായിട്ട് കാണിച്ചോ തുടങ്ങി ആ അപ്പോൾ ഒരു കാര്യം ചെയ്യാം ആ അങ്ങനെ എച്ച് ഡി എല് ഉണ്ട് അപ്പം ഗുളിക കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ വേഗം വന്ന് കാണുന്നതാണ് നല്ലത് കേട്ടോ ഞാൻ അപ്പോയിമെ അപ്പോയിൻറ്മെൻറ് ആയിട്ട് എടുക്കണ്ട വേഗം വന്ന് കാഷ്വാല്റ്റിയിൽ വന്ന് കണ്ടോ കേട്ടോ വേദനയൊക്കെ ഉള്ളപ്പം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ്ട അപ്പോഴത്തേക്കിന് വേഗം വന്ന് കാഷ്വാല്റ്റി വന്ന് കാണിച്ചോ കേട്ടോ അപ്പൊഴത്തേക്കിന് ആ അവിടെ വരുന്ന ഡോക്ടർ അവിടെ ഉണ്ട് സ്റ്റാഫുമാർ ഉണ്ട് അവരോട് പറഞ്ഞാൽ അവർ ഇങ്ങനെ വേദനയാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ എത്രയും വേഗം ഇങ്ങ് പോര് കേട്ടോ വെയിറ്റ് ചെയ്യണ്ട കേട്ടോ ഓക്കെ ശരി എന്നാൽ ശരി എന്നാൽ ഓക്കെ വേഗം പോര് ആ ഓക്കെ